എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ വോയ്സ് കോളും വീഡിയോ കോളും രണ്ടും നമുക്ക് ഒരേപോലെ ഉപകാരപ്പെട്ടതാണ് ഇപ്പം നമുക്ക് എല്ലാ സാഹചര്യങ്ങളിലും വോയ്സ് കോൾ ചെയ്യാൻ പറ്റണമെന്നില്ല പക്ഷേ നമ്മൾ ആയിട്ട് അത്രത്തോളം നമുക്ക് ഇപ്പം ഒരു ഒരു ഗിൽഫിൽ ജോലി ചെയ്യുന്ന ഒരു അപ്പൻ ഭാര്യയും മക്കളുമൊക്കെ നാട്ടിലാണ് അപ്പം അപ്പൻ നാട്ടിൽ വരുന്നത് വർഷത്തിൽ ഒരു മാസം വർഷത്തിൽ ഒറ്റ തവണ ആയിരിക്കും നാട്ടിൽ വരുന്നത് ലീവിന് അപ്പം ബാക്കി അത്രയും കാലം അപ്പൻ അവിടെയാണ് മക്കളുമായിട്ട് ഒരു കോൺടാറ്റും ഇല്ല അപ്പം ഈ മക്കൾക്ക് ഒന്നു അത്യാവശ്യം അപ്പനെ കാണണമെങ്കിലോ അല്ലെങ്കിൽ അപ്പന് മക്കളെയും ഭാര്യയേയും കാണണമെങ്കിലോ അപ്പം അങ്ങനെയുള്ള ഒരു വികാരങ്ങൾ ഓരോരുത്തറിൻ്റെ വ്യക്തിപരമായ പേഴ്സണൽ വികാരങ്ങളിൽ അത് നമ്മൾക്ക് ഈ വീഡിയോ കോൾ ചെയ്യുമ്പോഴാണ് അത് അവർക്ക് സഫലമാവുന്നത് അത് മാത്രമല്ല വീഡിയോ ക്കോള് നമുക്ക് പല സാഹചര്യങ്ങളിലും ഉപകാരപ്പെടും ഇപ്പം നമുക്ക് അത് എന്നു പറഞ്ഞാൽ എടുത്ത് പറയാൻ പറ്റിയ കുറേ കാര്യങ്ങൾ ഇപ്പം നമുക്ക് ഒരു ഒരാളുടെ വീട്ടിലോട്ട് പോവാൻ ലൈവ് ലൊക്കേഷൻ ഇട്ടിട്ട് ശരിയായില്ല വഴി എപ്പോഴും ഗൂഗിൾ മാപ്പ് വഴി തെറ്റിക്കുന്നു അപ്പം അയാളുടെ വീട്ടിലോട്ട് പോകുമ്പോൾ അയാളെ നമുക്ക് ഡറക്റ്റ് ഒരു വീഡിയോ കോൾ ചെയ്തു കഴിഞ്ഞാൽ അയാൾ നമ്മൾ വീഡിയോ കോൾ ചെയ്യുമ്പം അയാൾ നമ്മൾക്ക് അയാൾ സ്ഥിരം വന്നിട്ട് വഴി കണ്ടാൽ അയാൾക്ക് ബൈഹാർട്ട് ആയിട്ട് നമ്മളോട് പറഞ്ഞു തരാൻ സാധിക്കും എങ്ങനെ അങ്ങോട്ട് തിരിയണം എങ്ങോട്ട് എങ്ങോട്ട് തിരിയണം ഏതിലെ വരണം വോയ്സ് കോൾ ആണോ വീഡിയോ ക്കോൾ ആണോ നിങ്ങൾക്ക് ഇഷ്ടം എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് രണ്ടും ഇഷ്ടമാണ് നിങ്ങൾ ഒരു ദിവസം എത്ര സമയം ഫോണിൽ ചിലവഴിക്കും എന്ന് ചോദിക്കുമ്പോൾ ഇപ്പം ഒരു സ്റ്റുഡൻ്റ് എന്ന നിലയിൽ ഞാൻ ഒരുപാട് ഒരു രണ്ട് അല്ലെങ്കിൽ ഒരു മൂന്ന് മണിക്കൂറിലാണ് ഫോണിൽ ചിലവഴിക്കുന്നത് പക്ഷേ ഞാൻ ഒരു ബ്രേക്ക് എടുത്ത് ഇപ്പം വീട്ടിൽ ലീവിന് പോയി നിൽക്കുകയാണെങ്കിൽ ആ രണ്ട് മൂന്ന് മണിക്കൂർ ചിലപ്പം ആറ് മുതൽ എട്ട് മണിക്കൂർ വരെ എട്ടിൽ അധികം പോയ ഒരു കാര്യം ദിവസങ്ങൾ ഉണ്ട് കാരണം ഒരു സിനിമ കാണാൻ മൂന്ന് മണിക്കൂർ എടുക്കും ഇൻസ്റ്റാഗ്രാമ് സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരു അഞ്ച് ആറ് ഏഴ് മണിക്കൂർ ചിലവഴിക്കും ഇത് ഒരിക്കലും നല്ലതാണ് പ്രോത്സാഹിപ്പിപ്പിക്കുന്നു എന്നല്ല ഞാൻ പറഞ്ഞത് ഒരിക്കലും നല്ലതല്ല പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ നമുക്ക് ഒന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്യാലോ പണ്ടൊക്കെ ഒരു അവധിക്കാലം കിട്ടുമ്പം വീട്ടിൽ പോവുമ്പം ഹോസ്റ്റലിൽ നിന്ന് വീട്ടിൽ പോവുമ്പം അന്ന് വീട്ടിൻ്റെ അടുത്ത് എല്ലാവരും ഉണ്ടായിരുന്നു പിള്ളാരുമായിട്ടൊന്ന് വൈകുന്നേര സമയം അല്ല ഉച്ച സമയം തൊട്ട് ക്രിക്കറ്റ് കളി ഫുട്ബോള് കളി അല്ലെങ്കിൽ ചൂണ്ട ഇടാൻ പോവുക അങ്ങനെ പല വിനോദങ്ങളിലും ഏർപ്പെടാമായിരുന്നു പക്ഷെ ഇന്ന് പിള്ളാരില്ല ഇവിടെ എല്ലാവരും വിദേശങ്ങളിലോട്ടും അല്ലാതെ ഹയർ സ്റ്റഡീസിന് ആയിട്ട് വേറെ സ്റ്റേറ്റുകളിലോട്ടൊക്കെ പോവുമ്പം നമ്മൾ അവരെയൊക്കെ വല്ലാതെ മിസ്സ് ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾക്ക് ഒരിക്കലും അങ്ങനെ ആ ഒരു ഇതിൽ എൻഗേജ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം അതൊരു വലിയ ഒരു കുറവാണ് എന്നെ സംബന്ധിച്ചു എനിക്ക് അപ്പം അത് വല്ലാണ്ട് ഒരു മിസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പം അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ പലവരെയും ഒരു വീക്ക്നെസ്സ് ആണ് മങ്ങനം ഈ പണ്ട് സോഷ്യലി എല്ലാവരേയും ആയിട്ട് ഇൻട്രാക്റ്റ് ഡയറക്റ്റ് ഇൻട്രാക്റ്റ് ചെയ്തു കൊണ്ടിരുന്നവർ ഇപ്പം അങ്ങനെ ഒരു ഒന്നും വരാത്ത ഒരു ഡയറക്റ്റ് ഇൻട്രാക്റ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഫോണുമായിട്ട് ചുരുങ്ങി ഒരു റൂമിൽ ഒരു ബെഡിൽ മണിക്കൂറുകളോളം ചിലവാക്കുന്നതാണ് ഇന്നത്തെ ഒക്കെ തലമുറ മൊത്തം തലമുറ മൊത്തം നമ്മൾ കാണുന്നത് അത് ഒരിക്കലും നല്ലതാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അതിൽ മോശം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിൽ ഒരുപാട് ദോഷങ്ങളും ഇതുകൊണ്ട് അതിന് ഒരുപാട് സൈഡെഫ്ക്ട് ഉണ്ട് കാരണം നമ്മൾ എങ്ങനെ ഫോണും ഒരു ബെഡും ഒ രു റൂമും ആയിട്ട് ചുരുങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നാളെ ഒരു സമൂഹത്തിൻ്റെ മന്ന് ഒരു പ്രസംഗം പറയാനോ നാല് പേരുടെ അടുത്തത് പോയിട്ടൊന്ന് ഇൻട്രാക്റ്റ് നോ നമുക്ക് ഒരിക്കലും സാധിക്കത്തില്ല അത് വലിയ ഒരു പോരായ്മ തന്നെയാണ് അത് തന്നെ സംബന്ധിച്ചു എനിക്ക് അത് വല്ലാതെ ഫീൽ ചെയ്തു ഞാൻ അതേ സാഹചര്യങ്ങളിലൂടെ കടന്നു പോയതാണ് പിന്നേ അത് ഞാൻ അത് ഇന്ന ഇന്നൊക്കെ മോചനം കണ്ടെത്തിയത് ഒരു കോളേജിൽ വന്നു ഡിഗ്രി ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുമ്പോഴാണ് ഹോസ്റ്റലിൽ നിൽക്കിമ്പോോൾ അതിൽ ഒരുപാട് ഹോസ്റ്റലേഴ്സുണ്ട് എന്നെ പോലെ മറ്റുള്ളവരും ഉണ്ട് അപ്പം അവടെ കളി പിന്നേ

പക്ഷേ അതിന് അതിനപ്പുറം വേറെ ഒരു കാര്യം പറയാമെന്ന് വച്ചാൽ പലവരും എന്നിട്ട് പോലും ഫോണ് റൂമ് കോളേജ് ക്ലാസ് അത്ര ഇതിൽ ചുരുങ്ങുന്നവരൂണ്ട് അത് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന കാര്യമല്ല കാരണം ഇൻട്രോവേറ്റായിള്ള ആൾക്കാർ ഉണ്ട് പക്ഷേ എപ്പോഴും ഇൻട്രോവേറ്റ് ആയിട്ട് നിന്നിട്ട് കാര്യം ഇല്ലല്ലോ എക്സ്ട്രോവേറ്റ് ആവണ്ടേ സമയങ്ങൾ ഉണ്ടല്ലോ ഇപ്പം ഒരു ക്കോള് പോലും നമ്മൾ ഇതായിപ്പം നേരിട്ട് ഇൻട്രാക്റ്റ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ഒരു കൂട്ടാരായിട്ട് സംസാരിക്കുന്ന ഒരു കോളിൽ മണിക്കൂറോളം സംസാരിക്കിന്നവർ ഉണ്ട് ഇപ്പം ഞാൻ എൻ്റെ കൂടെ പണ്ടൂ സ്കൂളിൽ പഠിച്ചവരെ വിളിക്കുമ്പം ഞാൻ ഒരു ഒറ്റ സ്ട്രെച്ചിൽ മൂന്ന് വട്ട് നാല് മണിക്കൂർ വരെ അവരുമായിട്ട് സംസാരിക്കാറുണ്ട് അപ്പം അതിൽ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ്സ് ആണ് പല പഴേ കാര്യങ്ങൾ ഓർത്തു അവർ അതിനെ കുറിച്ചു ഡിസ്കസ്സ് ചെയ്യും എനിക്ക് അ ത് ഭയങ്കര ഒരു ഹാപ്പിനെസ്സ് ആയിട്ടുള്ള കാര്യമാണ് അപ്പ ഞാൻ അതിൽ അധികം എന്നാലും വളരെ അധികം സന്തോഷം കണ്ടെത്തുന്ന ഒരാളാണ് അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ എല്ലാവർക്കും വരട്ടെ എന്നാണ് ഞാൻ എപ്പളും ആഗ്രഹിക്കുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എപ്പളും നമ്മുടെ പഴയ കാര്യങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് പോവാം നമുക്ക് വളരെ സാധിക്കും അപ്പം നമ്മുടെ പഴയ തോട്ട്സും കാര്യങ്ങളുമൊക്കെ സംസാരിക്കുമ്പോൾ അതിൽ നമുക്ക് അതിലൂടെ ബന്ധങ്ങൾ എപ്പോഴും ഉറക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഒരു പുറത്തുള്ള ഒരു കൂട്ടുകാരനെ വിളിക്കുമ്പം ആഴ്ച്ചയിൽ ഡെയ്ലി വിളിക്കണം എന്നല്ല ആഴ്ച്ചയിൽ വിളിക്കണം എന്നല്ല മാസത്തിൽ ഒരു ഒന്നോ രണ്ടോ തവണയേലും അവനെ വിളിക്കാൻ ശ്രമിക്കുവാണെങ്കിൽ ബന്ധങ്ങൾ എപ്പോഴും കൂട്ടി ഉറക്കുകയാണ് ചെയ്യുന്നത് അത് വീഡിയോ കോൾ ചെയ്യുകയാണെങ്കിൽ അവൻ അത് നല്ല സന്തോഷമാണ് അപ്പം ഈ മൊബൈൽ വീഡിയോ ക്കോളും വോയ്സ് കോളും നമ്മുടെ ഒരു ഡേ റ്റു ഡേ ലൈഫിൽ വളരെ അധികം ഉപയോഗം വരുന്ന ഒരു ഘടകമാണ് അപ്പം അത് നമ്മൾ ഒരിച്ചും ഒഴിച്ചു കൂടാൻ പറ്റാത്ത കാര്യമല്ല പണ്ടൊക്കെ പണ്ട് കാലത്ത് കോളും സൗകര്യമൊക്കെ വളരെ കുറവായിരുന്നു അപ്പം ഒരു സ്ഥലത്ത് നിന്ന് മറ്റ് സ്ഥലത്തോട്ട് ട്രാവൽ ചെയ്തു ആകും ഒരു കാണാൻ പോകുമ്പം ട്രാവൽ ചെയ്തു കാണാൻ പോകുമ്പം അത്രയും സ്ട്രഗ്ൾ ചെയ്തു പോകുന്നത് ബന്ധങ്ങൾ ഉറപ്പിക്കാൻ കൂട്ടി ഉറപ്പിക്കാൻ വേണ്ടിയാണ് അപ്പം ഇന്നത്തെ കാലത്ത് വീഡിയോ ക്കോള് വോയ്സ് കോളൊക്കെ വളരെ സുലഭമായിട്ട് ഒത്തിരി പൈസ ചിലവില്ലാതെ നമുക്ക് ചെയ്യാൻ സാധിക്കുമ്പോൾ ഇന്ന് ഇന്ത്യ ചെയ്യുക സാധിക്കുമ്പോൾ കേരളത്തിൽ ചെയ്യുക സാധിക്കുമ്പോൾ അത് വളരെ മറ്റൊരു കാര്യമാണ് അപ്പം അതു കൊണ്ട് മാക്സിമം ഇത് ഈ ടെക്നോളജി ഉപയോഗിച്ചു ഇതെല്ലാം ചെയ്യാൻ ശ്രമിക്കുക